എല്ലാ ആളുകളും ഒത്തുച്ചേരുന്ന ഏതെങ്കിലും മതപരമോ സാമൂഹികപരമോ ആയിട്ടുള്ള പരിപാടികൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയും ഒരു കല്ല്യാണ വീട് എന്നുള്ളതാണ് കല്ല്യാണ വീട് എന്നു പറയണത് ഒരു ആഘോഷം തന്നെയാണ് തീർച്ചയായും ഒരു മതപരമായിട്ടുള്ളൊരു ആഘോഷമല്ല അത് അതൊരു സമൂഹികപരമായിട്ടുള്ളൊരു ആഘോഷമാണ് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വച്ചാൽ ഒരു വീട്ടിലൊരു കല്ല്യാണമുണ്ടാകുമ്പോ ആ വീട്ടിലുള്ള നാലാൾ മാത്രമല്ല ആ ആഘോഷത്തിൽ പങ്കെടുക്കുക ആ വീട്ടിലെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആ വീടിന്റെ ചുറ്റുമുള്ള അയൽവാസികൾ ആ നാട്ടുകാർ എല്ലാവർക്കും അതൊരാഘോഷമാണ് ആ വീട്ടിലുള്ള ആൾക്കാർ മാത്രമായിരിക്കില്ല ആ പരിപാടിക്ക് വേണ്ടി ഒരുങ്ങുക ആ നാട്ടുകാരും കൂടി ഒരുങ്ങും അവർക്കുകൂടി ഡ്രസ്സുകൾ എടുക്കും ആഭരണങ്ങൾ എടുക്കും ആ കല്ല്യാണം മോടി കൂട്ടനായിട്ട് അവർ വന്ന് ഹെൽപ്പ് ചെയ്യും സദ്യ ഒരുക്കും വർത്താനങ്ങൾ പറയും വിശേഷങ്ങൾ പങ്കു വയ്ക്കും അതൊരു പ്രേത്യേകപരമായിട്ടുളള ആഘോഷം തന്നെയാണ് തികച്ചും ഒരു സമൂഹികപരമായിട്ടുള്ള ആഘോഷം തന്നെയാണ് കേരളത്തിൽ പ്രേത്യേകിച്ചും കല്ല്യാണങ്ങൾ വലിയ ആഘോഷം തന്നെയാണ് ഒരു സമൂഹികപരമായിട്ടുള്ള ആഘോഷം തന്നെയാണ് കല്ല്യാണങ്ങളെന്ന് പറയുന്നത് കല്ല്യാണം മാത്രമല്ല ഒരു ക്ലബിന്റെ വാർഷികമായിക്കോട്ടെ അതും ഒരു നാട്ടിലെ സമൂഹികപരമായിട്ടുള്ള ആഘോഷം തന്നെയാണ് ജാതിമതഭേതമന്യേ അവരാഘോഷിക്കുന്നൊരു കാര്യമാണ് ക്ലബിന്റെ വാർഷികം എന്ന് പറയുന്നത് അവിടുത്തെ നാട്ടുകാരും വീട്ടുകാരും കുട്ടികളും ഒന്നടങ്കം ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് ക്ലബിന്റെ വാർഷികം